ആ ആരാണ് ആ പറഞ്ഞോളൂ എന്താണ് ഇപ്പം ആ ആ ആ അത് അല്ല ലീവ് തരുന്നതിനല്ല ഓൻ കുറച്ച് ഈയിടെ ആയിട്ട് പഠിത്തത്തിൽ കുറച്ച് ഉഴപ്പുന്നുണ്ടോ എന്നൊരു സംശയം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ വീട്ടിൽ നിന്ന് ആ ആ ആ അല്ല ഇപ്പോൾ ലീവ് തരാം ഞാൻ പക്ഷേ എന്താണെങ്കിലും നിങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് അധികം ശ്രദ്ധിക്കണം എന്ത് പറഞ്ഞതിനിപ്പോൾ പബ്ലിക് എക്സാം എല്ലാം വരുന്നുണ്ടതല്ലേ അതിനുണ്ടോ ട്യൂഷന് പോവുന്നുണ്ടോ ഓൻ അതെയോ ആ ആ അതെയോ നിങ്ങൾക്ക് എപ്പോൾ പരിപാടി എപ്പം പറഞ്ഞത് അപ്പോൾ എത്ര ദിവസം ലീവ് പറഞ്ഞ് നിങ്ങൾ എത്ര ദിവസം വേണമെന്ന്

അതെയോ അങ്ങനെ പരീക്ഷ പത്ത് പരീക്ഷ ഇപ്പം മാർച്ച് പതിനഞ്ചിന് പരീക്ഷ തുടങ്ങുന്നുണ്ട് അത് ഇപ്പോൾ റിവിഷൻ ക്ലാസ് എടുത്തുകൊണ്ടുണ്ടത് അതുകൊണ്ട് ലീവ് ആക്കുമ്പോളേക്കില്ലേ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ട് കുട്ടിക്കതിൻ്റെ ആ റിവിഷൻ കിട്ടലില്ലല്ലേ അതുകൊണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ലീവ് ആക്കീനെങ്കിൽ നല്ലയുണ്ടായി പിന്നെ ആ ആ ആയിക്കോ ഞാൻ പ്രിൻസിപ്പലിനോടൊന്ന് സംസാരിച്ച് നോക്കുന്നു എന്താണ് പറഞ്ഞതെങ്കിൽ ഏത് കുട്ടിയും ലീവ് ആക്കേണ്ട എന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഞാൻ നോക്കാം നോക്കിയിട്ട് ഞാൻ സംസാരിച്ചിട്ട് ആദർശിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ച് നോക്കുന്നു ആ ഇത് ഇല്ല ഇല്ല അങ്ങനത്തെ കുസൃതി ഒന്നും ഇല്ല ഇല്ല ഇല്ല നല്ല പഠിച്ചും ഉണ്ടായിന് അത് അല്ല ഈയിടെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വന്നത് ആ ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല നിങ്ങൾക്കത് ശ്രദ്ധിച്ചെങ്കിൽ ഓൻ ഉഷാറാവും ആവുമോ ആ ആ ആ ആ ആ അതെ അതെ അതെ ആ ആയിക്കോട്ടെ ആയിക്കോ ശരി എന്നാൽ ഓക്കെ എന്നാൽ ഉണ്ടായാൽ മതി